ഹലോ ആ ആരാണ് ആ അതെ അതെ ആ ആരാണ് ആണോ എ ഇവിടെ നോർമൽ ടീ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ ടീ ഉണ്ട് പിന്നെ പൈനാപ്പിൾ ടീ ഉണ്ട് മസാല ടീ ഉണ്ട് ഇതൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ആണോ ആ ആ ചെയ്യാം എങ്ങോട്ടേക്കാണ് എത്തിക്കേണ്ടത് ആ ആ ആ മസാല ടീയും വേണമല്ലേ അപ്പോൾ മസാല ടീ എങ്ങനെ എന്താണ് ആ മധുരം ഉള്ളതാണോ മധുരം ഇല്ല മധുരം ഉള്ളതാണ് വേണ്ടത് ഓ ഓക്കെ അത് എങ്ങോട്ടേക്കാണ് എത്തിക്കേണ്ടത് ആ ആ ആ ആ വേണ്ട ഞങ്ങൾ എത്തിക്കാം ആ അപ്പോൾ എപ്പം എങ്ങനെ ആ ഓക്കെ ഓക്കെ ആ പിന്നെ എത്രന്നാണ് ആ ഉണ്ടാവും ആ ഉണ്ടാവും അതൊക്കെ ഞങ്ങൾ എത്തിക്കാം ആ പിന്നെ നല്ല ആ ഫ്രഷ് ആയിട്ടുള്ള നല്ല ചൂടുള്ള ചായ തന്നെ എത്തിക്കാം ഉം ആ ഓക്കെ മസാല ടീക്ക് ഒക്കെ റേറ്റ് കൂടും ആ പിന്നെ അത് നോർമൽ ചായയ്ക്ക് ഞങ്ങൾ എട്ട് രൂപ വെച്ചിട്ടാണ് എടുക്കാറുള്ളത് പിന്നെ മസാല ഇതുപോലെ പതിനഞ്ച് രൂപ പതിനെട്ട് രൂപ മസാലയ്ക്കനുസരിച്ചിരിക്കും ആ പിന്നെ നിങ്ങൾ പറയുന്നത് കോഫി അല്ലേ പിന്നെ പറഞ്ഞത് അഞ്ചെണ്ണം അല്ലായിരുന്നോ ആ കോഫിക്ക് ഇത് പറയാൻ ഞങ്ങൾ പതിനഞ്ച് രൂപ തന്നെ അപ്പോൾ ഞങ്ങൾ ആ ടൈം ആവുമ്പോഴേക്ക് എത്തിക്കാം കേട്ടോ ആ ആ ശരി ശരി ഓക്കെ